ഹോട്ടൽ ആൻ്റ് ഹോസ്പിറ്റാലിറ്റിയിൽ സഹായിച്ചിട്ടുള്ളത് പ്രധാനമായും ബുക്കിങ്ങുകളിലാണ് ബുക്കിങ്ങുകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടലുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം അത് മുൻകൂറായി പണമടച്ചു അതിൻ്റെ സർവീസുകളെല്ലാം നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് വളരെ അധികം സൗകര്യപ്രദമാണ് ഒരു തുക ഉറപ്പിച്ചു നമുക്ക് ഒരു ഹോട്ടലിൽ താമസിക്കാൻ സാധിക്കുന്നു ഒരു ഹോട്ടലിൻ്റെ മുൻ കാലങ്ങളിൽ താമസിച്ചിരുന്നവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഒരു ഹോട്ടൽ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു മറ്റുള്ള ആ ഹോട്ടലിൽ അതിഥികൾ എപ്രകാരം സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നൊക്കെ അറിയാൻ സാധിക്കുന്നത് വളരെ വലിയ കാര്യമാണ് ഇവിടെയെല്ലാം ടെക്നോളജി നമ്മേ സഹായിക്കുന്നു ഒരു പുതിയ സ്ഥലം നമുക്ക് പരിചയമില്ലാത്ത ഒരു പുതിയ സ്ഥലത്തേക്ക് നാം പോകുന്നൂ എന്നിരിക്കട്ടെ അവിടെയും ടെക്നോളജി ആണ് നമ്മളെ മികച്ച അക്കോമെഡേഷൻ കിട്ടുന്ന സ്ഥലം ആഥിഥേയത്തം കിട്ടുന്ന സ്ഥലമൊക്കെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഹോട്ടൽ ബുക്ക് ചെയ്താൽ മാത്രം പോര അവടെ എത്തിച്ചേരുന്നതിനുള്ള മാർഗ്ഗങ്ങളും ടെക്നോളജിയിലൂടെ തന്നെയാണ് നമുക്ക് സാധ്യമാകുന്നത് വഴി ചോദിക്കാതെ കൂടുതൽ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ വളരെ എളുപ്പത്തിൽ എന്നാൽ എല്ലാ സൗകര്യങ്ങളോടു കൂടി സുരക്ഷയോടു കൂടി താമസിക്കുന്നതിനും അവിടത്തെ പണമിടപാടുകൾ നടത്തുന്നതിനും അവിടെ നിന്ന് തിരികെ വീട്ടിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾക്ക് ടെക്നോളജി നമ്മളെ സഹായിക്കുന്നൂ